പുസ്തകങ്ങൾ വായിക്കുന്നത് ഇഷ്ടമാണ് വായിച്ച കഥാപാത്രങ്ങൾ ഇഷ്ടമാണ് പണ്ട് നേരത്തെ ചെറുപ്രായത്തിൽ മുട്ടത്ത് വർക്കിയുടെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു കരയിപ്പിച്ച ഒരു പുസ്തകം ഏതാണെന്നിപ്പോൾ ഓർമ്മയില്ല നോവലുകൾ വായിക്കുന്നത് ഇഷ്ടമാണ് നേരത്തെ മനോരമയിൽ മനോരമ ആഴ്ച്ചപ്പതിപ്പിൽ വരുന്ന നോവലുകൾ വായിക്കുമായിരുന്നു അത് ഇപ്പോൾ അതിനോട് വലിയ ഇന്ററസ്റ്റ് ഇല്ല അതിന് നോവല് പുസ്തകങ്ങൾ വായിക്കുന്നത് കുറവാണിപ്പോൾ വികാ പ്രത്യേകിച്ചും വികാരഭരിതനാക്കിയ കഥ എന്നിപ്പോൾ ഓർമ്മയൊന്നുയില്ല അങ്ങനൊരു നേരത്തെ വായിച്ച് നേരത്തെ ഓർമ്മയുണ്ടായിരുന്നു ഇപ്പോളതിനെപ്പറ്റി ഓർമ്മയൊന്നുമില്ല